ഹലോ ഇത് ഇപ്പം ട്രാഫിക് ബ്ലോക്കിലല്ലേ വണ്ടി കിടക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം എൻ്റെ ലൊക്കേഷനിൽ അതായത് എനിക്ക് ഒന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്ര ടൈം എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചതായിരുന്നു വണ്ടി ഇപ്പോൾ എത്താൻ എത്തുമോ ഇവിടെ നിങ്ങൾ ട്രാഫിക്ക് ബ്ളോക്കിലാണെന്ന് എനിക്ക് മെസ്സേജ് കണ്ടായിരുന്നു അതാണ് ഞാൻ വിളിച്ച് നോക്കിയത് ആ ഓക്കെ ഒക്കെ അപ്പം നമ്മുടെ ലൊക്കേഷനിൽ എത്തി കഴിഞ്ഞ് അവിടുന്ന് വേറെ എവിടെ എങ്കിലും ഒക്കെ ട്രാഫിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കേ ആ അല്ല എത്ര സമയം കൊണ്ട് എത്തുമെന്ന് എനിക്ക് അവരെ ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കെ ഓക്കെ എന്നാൽ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും റൂട്ട് വഴി പോകാൻ ഉള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ വേറെ ഏതെങ്കിലും റൂട്ട് നമുക്ക് ഇപ്പോൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും മാർഗ്ഗം പോകാൻ പറ്റുമോ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തത് ഓക്കെ ആ ഓക്കെ തൃശ്ശൂർ വഴി അല്ലേ തൃശ്ശൂരിൽ നിന്ന് വേറെ ഒരു ആ ഓക്കെ ഓക്കെ ആ വഴിയല്ലേ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അത് ഒന്ന് ഒന്ന് റെഡി ആക്കുവാണെങ്കിൽ ആ വഴി ബ്ലോ ഗട്ടർ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആ വഴി നമുക്കൊന്ന് അതിലെ പോകാം എന്നാൽ അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് വഴി അല്ലാണ്ട് നമുക്ക് അതിലേ അങ്ങനെ പോകാമല്ലോ അങ്ങനെ ആണെങ്കിൽ വേഗം ഒന്ന് വന്നോളൂ കേട്ടോ ഞാൻ ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കുന്നുണ്ട് വേഗം പോരൂ ഓക്കെ എന്നാൽ